ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല്